ഞാൻ എൻ്റെ എൻ്റെ അനുഭവത്തിൽ വന്നിരിക്കുന്നത് ഞാന് വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അതില് ഞാൻ എൻ്റെ ഏറ്റവും വിഷമം തോന്നിയത് എൻ്റെ അടുത്ത വീട്ടിലെ അനിതയുടെ അനിതയുടെ ആങ്ങളയുടെ കല്യാണത്തിന് അനിത നല്ലൊരു സാരി വാങ്ങിച്ചു വിത്ത് ബ്ലൗസ് ആയിരുന്നു അത് നന്നായിട്ട് തയ്കുന്നെ എൻറ്റേ തന്നെ ഏൽപിച്ചു അത് ഒരു വലിയൊരു പിഴവുപറ്റി അളവെടുത്തത് തെറ്റ് പറ്റിപ്പോയി ഞാന് വളരെ വളരെ ശ്രദ്ധയോടൊക്കെ എടുത്തായിരുന്നു പക്ഷെ എന്തോ എനിക്കത് തെറ്റിപ്പോയി അവിടെ അങ്ങനെ അത് തയ്ച്ചുവന്നപ്പഴത്തേക്ക് അനിതയ്ക്ക് അത് ശരിയല്ലാന്ന് തോന്നി അളവ് അളവ് തന്ന ബ്ലൗസിനെക്കാട്ടിലും വളരെ ചെറുതായിപ്പോയി ഞാൻ പിന്നെ അത് അഴിച്ചെടുത്തു കുറേ മിനുക്കുകള് ഇത് കുറേ ഒരു സൈഡിലൊക്കെ കുറേ ആഡ് ചെയ്തു ഒക്കെ ഒരു തരത്തിലത് ശരിയാക്കിക്കൊടുത്തു പക്ഷേ അത് കൊടുത്തുകഴിഞ്ഞപ്പഴത്തേക്ക് കൂടുതല് ഭംഗി ആയിരുന്നു അത് അനിതയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ പ്രശ്നങ്ങള് പരിഹരിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഇത് ഇനി ഇത് ഇനി ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാന് അളവെടുക്കുമ്പഴെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് എടുക്കുന്നത് ഒരു പ്രാവശ്യമല്ലേ ഒരു ഒരു അബദ്ധമല്ലേ പറ്റാന് പാടുള്ളു അപ്പോള് പിന്നെയും പിന്നെയും പറ്റിക്കഴിഞ്ഞാല് എന്തോരു നമുക്ക് സമയം നഷ്ടമാകും ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് വീണ്ടും ഞാൻ വളരെ ആലോചിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അതു അതുപോലെതന്നെ വേറൊരു ഇത് വന്നത് എനിക്ക് ഒരു ദിവസം തയ്ച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യില് സൂചി കയറി അന്നെൻ്റെ എന്തോ അശ്രദ്ധയായിട്ട് വേറെവിടെയോ ആലോചിച്ച് പിന്നെ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് പറ്റിയൊരബദ്ധാണത് എന്നിട്ടത് കുറേ നാള് എനിക്ക് തയ്ക്കാൻ പറ്റാതെ അത് സ്റ്റിച്ചിടുകയൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോള് വേദന വേദനയും വിഷമവുമൊക്കെ ആയിട്ട് വേറെ തയ്ക്കുക മാത്രമല്ല വീട്ടിലെ പണികൾ പോലും ആയിപ്പോയി പിള്ളേരെ ആശ്രയിക്കേണ്ടിവന്നു മറ്റു ജോലികൾക്കെല്ലാം അങ്ങനെ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് സഹിക്കേണ്ടി വന്നതുകൊണ്ട് ആ അനുഭവം എനിക്ക് പിന്നീട് ഒരു പാഠമായി അതിന് ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ മിഷൻ തയ്യൽ മിഷനിൽ കേറുമ്പോഴെല്ലാം വളരെ ശ്രദ്ധയോട് അരികെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പല അനുഭവങ്ങള് വന്നതു കാരണം വളരെ ശ്രദ്ധിച്ച് ഒക്കെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇതിപ്പോള് തയ്ക്കുമ്പോൾ മാത്രമല്ല മറ്റ് എന്തുകാര്യങ്ങള് ചെയ്യുമ്പോഴാണേലും ഈ അനുഭവങ്ങളോർത്ത് ഈ ബദ്ധപ്പാടോർത്ത് ഞാൻ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും കിച്ചണിലാണേലും പാചകം ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ഞാന് ചെയ്തുപോവുന്നു